ആ ഇതാരായിരുന്നു ആ ഓക്കേ ഓക്കേ അതെയല്ലേ നിങ്ങളെത്ര ദിവസത്തെ പ്രോഗ്രാമാണ്

ഒരാഴ്ച്ചത്തെ പ്രോഗ്രാമാണോ എത്ര ആളുകളുണ്ട് പത്താളുകൾ അപ്പോൾ വലിയ ഗ്രൂപ്പാണല്ലേ വയനാട്ടിൽ ഒത്തിരി പ്ലേസുകളുണ്ട് ബാണാസുര സാഗറുണ്ട് അതേപോലെ പിന്നെയിവിടെ മുനീശ്വരം കുന്ന്

അങ്ങനെ തുടങ്ങി ഒത്തിരി പ്ലേസുകളുണ്ട് കോഴിക്കോടെത്തിയിട്ടുണ്ടോ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് തിരിക്കുകയാണോ അവിടെ വാഹന സൗകര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അതേപോലെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ സർവ്വീസാണ് നിങ്ങൾക്കിതെൻ്റെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതിയോ ബാക്കി ടൂറിസ്റ്റ് പ്ലേസുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നാൽ മതിയോ നിങ്ങൾ പൊയ്ക്കോളുമോ നമ്മൾ ഗെയ്ഡിനെ കൂടെ വിടേണ്ട ആവശ്യമുണ്ടോ അഹ് ഓക്കേ അഹ് അതാണ് ആ ഓക്കേ ഓക്കേ അഹ് നിങ്ങൾക്ക് ഫുഡ്ഡ് കേരളീയ ഫുഡ്ഡ് മതിയോ അതല്ലാതെ പുറമേ നിന്നുള്ള ആളുകളാരെങ്കിലുമുണ്ടോ മലയാളീസ് തന്നെയാണെല്ലാവരും ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണോ അവിടെ വാഹനം അറേഞ്ച് ചെയ്തുതരാം അവിടെ നമ്മൾ ടാക്സി അറേഞ്ചു ചെയ്താൽ നിങ്ങൾ അതിലിങ്ങോട്ടേക്ക് വന്നാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ബാണാസുര സാഗർ പിന്നെ ചെമ്പരാ പീക്ക് പിന്നെയിവിടെ തലപ്പുഴ മാനന്തവാടി ഭാഗത്തേക്ക് വന്നാൽ തിരുനെല്ലി ക്ഷേത്രം ഉണ്ട് പക്ഷി പാതാളമുണ്ട് പിന്നെ മുത്തങ്ങ അങ്ങനെ ഒത്തിരി പ്ലേസുണ്ട് ഇവിടെ അതേപോലെതന്നെ മുനീശ്വരൻ കുന്നെന്നു പറയുന്നൊരു സ്ഥലം ഉണ്ട് അവിടെ കയറിയിട്ടാണെങ്കിൽ നല്ല ടോപ്പ് വ്യൂ ആണ് വയനാട് ജില്ല മൊത്തം കാണാൻ വേണ്ടി പറ്റും പിന്നെ റിസോർട്ടും കാറും റിസോർട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഫുഡ്ഡും കൂടി വിത്ത് ഫുഡ്ഡാണ് എങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അതല്ല നിങ്ങൾ ഫുഡ്ഡ് പുറത്തു നിന്ന് കഴിക്കുകയാണെങ്കിൽ താമസം മാത്രമാണെങ്കിൽ അതൊരുക്കിത്തരാം ഫുഡ്ഡും കൂടി വേണം അല്ലേ ഓക്കേ എന്നാൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തുതരാം നിങ്ങളവിടെനിന്ന് കയറി പോന്നോളൂ കേട്ടോ ഓക്കേ